എനിക്ക് പരിചിതമായ നൃത്ത രൂപങ്ങളിൽ നിന്ന് മാറി ഒരുപാട് നൃത്ത രൂപങ്ങൾ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് പണ്ടുതൊട്ടേ കുച്ചിപ്പുടി ഭരതനാട്യം എന്നിവ പഠിക്കുന്നുണ്ടായിരുന്നെങ്കിലും മോഹിനിയാട്ടത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അത് പഠിച്ചിരുന്നില്ല എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കേരളനടനം പഠിക്കാൻ ഒരു അവസരം കിട്ടി എന്നാൽ ആദ്യം കേരളനടനം കളിക്കുക എന്ന് പറയുമ്പോൾ ഈ ഇതെങ്ങനെ എന്നുള്ളൊരു കാര്യം മനസ്സിൽ വന്നെങ്കിലും കാരണം അത് കഥകളിയുടെയും മോഹിനിയാട്ടത്തിൻ്റെയും ഒരു മിക്സഡ് രൂപമാണ് കേരളനടനം എന്നു പറയുന്നത് എന്നാൽ പുതിയ ഒരു കലാരൂപം പഠിക്കുക എന്നുള്ള രീതിയിൽ അതിനെ കാണുകയും പിന്നീട് അതിനു വേണ്ടി ഒരുപാട് തവണ പ്രയത്നിക്കുകയും ചെയ്തു കാരണം മോഹിനിയാട്ടം അറിയില്ലായിരുന്നു അതേപോലെത്തന്നെ കഥകളിയും അറിയില്ലായിരുന്നു അതുകൊണ്ട്തന്നെ രണ്ടിൻ്റെയും കൂടി ഒരുമിച്ചുള്ള കലാരൂപം എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഒരുപാട് തവണത്തെ പ്രാക്ടീസിലൂടെ അത് നമുക്കെന്തു ചെയ്യാൻ പറ്റി പഠിച്ചെടുക്കാൻ പറ്റി അത് തന്നെയാണ് ഒരു പുതിയ കലാരൂപം എന്നുള്ളത് കാരണം മുൻപ് പഠിച്ച കലാരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു കലാരൂപം പഠിക്കുക എന്നുള്ളതും അത് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് എപ്പോഴും നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കേരളനടനം പഠിച്ചു എന്നുള്ളത് എപ്പോഴും ഒരഭിമാനമായും എപ്പോഴും ഒരു നല്ല കാര്യമായും മനസ്സിൽ ഓർക്കാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ടുതന്നെ വ്യത്യസ്തമായൊരു കലാരൂപം പഠിച്ചു എന്നോർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരികയും ഇതു തന്നെയായിരിക്കും